അതേല്ലോ അതേല്ലോ പറഞ്ഞോളൂ എന്താ വിളിച്ചിരുന്നത് ആ ഓക്കേ ഓക്കേ ആ സ്ഥലം ഇപ്പോൾ നമുക്ക് കോട്ടയത്താണ് അല്ലേ വേണ്ടത് എന്നിട്ട് നമുക്കിപ്പം എന്താ നിങ്ങളിപ്പം കോട്ടയത്ത് നോക്കുമ്പോഴത്തേക്ക് സ്ഥലം അകത്തോട്ട് കയറിയുള്ള സ്ഥലം വേണോ അതോ ടൗൺ ഏരിയ അതുപോലത്തെ സ്ഥലം വേണോ എന്താ നിങ്ങൾ നോക്കുന്നത് ഉള്ളിലോട്ട് കയറിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ കാര്യങ്ങൾ വരത്തില്ല അത് നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണെന്ന് പറയാണെ അതിന് അനുസരിച്ചുള്ള സ്ഥലം കാര്യങ്ങൾ ഞാൻ പറയാമായിരുന്നു അൻപത് ലക്ഷത്തിനും ഏഴുപത്തഞ്ചു ലക്ഷത്തിനും ഇടക്ക് അല്ലേ ആ അപ്പം നമുക്ക് കോട്ടയത്ത് കടുത്തുരുത്തിയിൽ ഒരു നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് സെൻറ്റ് കിടപ്പുണ്ട് അത് പറയുമ്പോഴത്തേക്കും ഒരു അറുപത് ലക്ഷം രൂപ വരും ആ വഴിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എല്ലാം ഉണ്ട് പഞ്ചായത്ത് വഴി കാര്യങ്ങൾ എല്ലാം ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എനിക്ക് തോന്നുന്നു അവിടന്ന് ടൗണിലോട്ട് വരാൻ ഒരൂ രണ്ട് കിലോമീറ്ററ് രണ്ട് കിലോമീറ്ററ് ദൂരം ഉണ്ട് പിന്നെ ബാക്കി ഉള്ള ഈ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ബാക്കി ഉള്ള കട കാര്യങ്ങൾ അങ്ങനൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ദൂരം യാത്ര ചെയ്യണമെന്നേ ഉള്ളൂ അല്ലാണ്ട് അതിൻ്റെ ഫ്രണ്ടീക്കൂടെത്തന്നെ ബസ് സർവ്വീസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് വലിയ ഇതല്ലെങ്കിലും എനിക്കു തോന്നുന്നു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ കൂടുമ്പോഴത്തേക്കും ഏഴ് ബസ് സർവീസെക്കെ ഉണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലവാണ് അത് വെള്ളത്തിൻ്റെ പ്രശ്നം ഒന്നും അവിടെ അങ്ങനെ വരുന്നില്ല വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും അവിടെ വരുന്നില്ല പിന്നെ നമുക്ക് വേറെ നോക്കണമെങ്കിൽ നമുക്ക് വേറെ നോക്കാം അല്ലാണ്ട് തൊടുപുഴയിൽ സ്ഥലം കിടപ്പുണ്ട് പിന്നെ അല്ലാണ്ട് കോട്ടയം നാഗമ്പലത്തിനടുത്തായിട്ട് സ്ഥലം കിടപ്പുണ്ട് അപ്പോൾ വെള്ളമൊന്നും ഈ ഒരു ഏരിയയിലോട്ടങ്ങനെ വെള്ളം കയറുന്നതൊന്നും അല്ല അതിപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ അവിടെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സ്ഥലവാണ് പിന്നെ അത്യാവശ്യം എന്താ പറയാ കിണറ് കാര്യങ്ങൾ കിണറ്റിലൊക്കേന്ന് വെച്ചാൽ അങ്ങനെ വേനൽക്കാലം ആയാൽ വെള്ളം വറ്റി പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ എപ്പോഴാണ് സമയം കിട്ടുന്നതനുസരിച്ച് ഒന്നുകിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കോട്ടയം നാഗമ്പലത്ത് തന്നെ നിന്നാൽ മതി നാഗമ്പലത്തിന്ന് വന്ന് വിളിക്കുവാണേൽ നമുക്ക് രണ്ട് പേർക്കുകൂടി ഒരുമിച്ച് പോയിട്ട് നാഗമ്പലത്തെ സ്ഥലവും പിന്നെ അതേപോലെ തന്നെ നമുക്ക് തൊടുപുഴയും മറ്റേടത്തെ മൂന്ന് സ്ഥലം ഉണ്ട് മൂന്ന് സ്ഥലവും നമുക്ക് പോയി കാണാം ആ പള്ളിയൊക്കെ അടുത്തോണ്ട് അതൊന്നും ഒരുപാട് ദൂരം ഒന്നും ഇല്ല പള്ളിയൊക്കെ ഈ മൂന്ന് സ്ഥലത്തിൻ്റെ അടുത്തടുത്തായിട്ട് പള്ളിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കേ അടുത്ത ഞായറാഴ്ച്ചയെന്നെ ആയിക്കോട്ടെ വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി അപ്പോഴ്ത്തേക്ക് ഞാൻ എത്തിയേക്കാം ഓക്കേ